ഇടുക്കിയിലുള്ള ഒരു ഇതായതുകൊണ്ട് റൂറൽ ഏരിയാസിലൊക്കെ സ്കൂളുകൾ അധികം ഇതില്ല ഓരോ പട്ടണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് വേറെയൊരു പട്ടണത്തിലേക്ക് സ്കൂളുകളുടെ ഇത് വരുന്നത് അപ്പം അങ്ങനെയുള്ള സമയത്ത് വരുമ്പോള് ഒരുപാട് ബുദ്ധിമുട്ടുകള് കുട്ടികള് നേരിടുന്നുണ്ട് അപ്പം അതിന് പോകാൻ യാത്രയ്ക്കായിട്ടുള്ളൊരു സംഭവമെന്ന് പറയുമ്പോള് ബസ്സുകളാണ് കൂടുതലുമുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെക്കാലത്ത് കേരള സിലബസില് പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളാണ് ഗവൺമെൻറ് ഗവൺമെൻറ് സ്കൂളിൽ പോയി പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളാണ് കൂടുതലുള്ളത് കാരണം അതുകൊണ്ട് തന്നെ അവര് സെലക്ട് ചെയ്യുന്നത് ചിലപ്പോള് സി ബി എസ് ഇ അല്ലെങ്കില് ഐ സി എസ് ഇ സ്കൂളാണ് ഇപ്പോള് ഈ സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളെന്ന് പറയുമ്പോള് ഒരു പട്ടണത്തിൽ തന്നെ ചിലപ്പോള് വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഏരിയാസിലായിരിക്കും ഇത് രണ്ടും വരുന്നത് മനസ്സിലായോ അപ്പം അങ്ങനെയുള്ള പ്രശ്നം വരുമ്പോള് ഒരു കുട്ടിക്ക് ഐ സി എസ് ഇയിലേക്ക് പോകണമെന്നുണ്ടെങ്കില്ത്തന്നെ ആ കുഞ്ഞ് ആ കുട്ടിയുടെ അടുത്തുതന്നെയായിരിക്കും സി ബി എസ് ഇ സ്കൂളുള്ളത് പക്ഷെ അതിൻ്റെ പാരൻറ്സ് വില്ലിങ് ചെയ്യുന്നത് സി ബി എസ് ഇയിലല്ല ആ കൊച്ച് ഐ സി എസ് ഇയില് പോയി പഠിച്ചാല് മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് നമ്മുടെ ആ ഒരു ഹൗസ് വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെ മാറിയാണ് നമ്മള് അപ്പം ചിലപ്പം ഓട്ടോറിക്ഷയില് യാത്ര ചെയ്യുന്നവരുണ്ട് മന്ത്ലി പേയ്മെൻറ് ഒരു മാസം ഇത്രയും രൂപയാണ് കുഞ്ഞുങ്ങള്ക്ക് ഒരു കുഞ്ഞിന് ഇത്രയും രൂപ അഞ്ഞൂറ് രൂപ അല്ലെങ്കില് ഒരു കുഞ്ഞിന് അതിന് ഇരുന്നൂറ്റിയമ്പത് രൂപ വെച്ചായിരിക്കും ഒരു മാസം കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെയൊരു ഇതാണുള്ളത് പോകുന്നത് അല്ലെങ്കിൽ ബസ് സംവിധാനമുണ്ട് അല്ലെങ്കിൽ ട്രാവലറാണുള്ളത് ഇപ്പോള് ബസ്സെന്ന് പറയുമ്പോള് ചിലപ്പോള് കെ എസ് ആർ ടി സി ബസ്സ് അല്ലെങ്കിൽ ട്രാവലർ അങ്ങനെ ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രൈവറ്റ് സ്കൂളിലൊക്കെ അവരുടെ സ്കൂളിന് നാലഞ്ച് ബസ്സുകള് കാണും അത് ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്പറിംഗാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന ബസ്സ് ഇന്ന സമയം ഇന്ന ഇത് ഇന്ന സ്റ്റോപ്പ് ഇത്ര ഇത് എന്നൊക്കെ പറഞ്ഞ് മാതാപിതാക്കളോട് പറഞ്ഞിരിക്കും അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ബസ്സ് പ്രൈവറ്റ് സ്കൂളിലൊക്കെ ബസ്സിന് അത്രയും പ്രശ്നം വരുന്നില്ല കാരണം ഓൾറെഡി ഇത്ര ബസ്സ് നമ്മുടെ കുഞ്ഞുങ്ങള് ഏത് സമയത്താണ് വരുന്നത് എവിടെയാണ് അവരുടെ ലോക്കൽ ഏരിയ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്കതില് മനസ്സിലാകുന്നുണ്ട് അപ്പം ലഭിക്കാൻ നിലവാരമുള്ള പ്രാഥമിക വിദ്യാഭ്യാസമെന്ന് പറഞ്ഞുകഴിഞ്ഞാല് കേരള സിലബസിനോട് എനിക്ക് തോന്നുന്നില്ല പിള്ളേർക്ക് ഇപ്പം പുതിയ ജനറേഷനിലുള്ള പിള്ളേർക്ക് താല്പര്യമുണ്ടെന്ന് തോന്നുന്നില്ല അവർക്കെല്ലാം എനിക്ക് തോന്നുന്നു സി ബി എസ് ഇ അല്ലെങ്കില് ഐ സി എസ് ഇ സ്കൂൾസിനോടാണ് താല്പര്യം അപ്പം ഗവൺമെൻറ് സ്കൂൾസ് എനിക്ക് തോന്നുന്നു ഇപ്പം ഫോർട്ടി പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് ബാക്കി രണ്ട് സ്കൂൾസിനുമാണെന്ന് തോന്നുന്നു പിള്ളേരുടെ എന്താണ് പറയുക ആബ്സെൻറീസം പോലും അവിടെ എനിക്ക് തോന്നുന്നു സ്ട്രിക്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് ഇപ്പോള് കേരള സ്കൂളിലാണെങ്കില് ആബ്സെൻറ്റീസം കൂടുതലാണ് അതേസമയം പ്രൈവറ്റ് സ്കൂളില് അങ്ങനെ പറ്റില്ല അവര് വോൺ ചെയ്യും രണ്ടും മൂന്നും പ്രാവശ്യം സോ അങ്ങനെയൊരു വിദ്യാഭ്യാസം എനിക്ക് തോന്നുന്നത് നല്ലതാണെന്ന് തോന്നുന്നു കുറച്ച് സ്ട്രിക്റ്റ് ഉണ്ടായതുകൊണ്ട് എനിക്ക് തോന്നുന്നു നല്ലതാണെന്ന് തോന്നുന്നു അപ്പം അതൊരു നല്ല ഇതായിട്ടാണ് എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നത് അപ്പോള് എല്ലാ കുട്ടികളും ഞാനിത് പറയുന്നില്ല എന്ന് വിചാരിച്ച് കേരളത്തിലുള്ള കേരള ഗവൺമെൻറ് സ്കൂൾസ് ഒന്നും നല്ലതല്ലെന്നല്ല ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഇത് വെച്ച് പറയുകയാണെങ്കില് എല്ലാവർക്കും എബ്രോഡ് പോയി സെറ്റിൽ ചെയ്യാനാണ് താല്പര്യം സോ അവര് നോക്കുമ്പോള് സി ബി എസ് ഇ ഐ സി എസ് ഇ അങ്ങനെയുള്ള സ്കൂൾസിനോടാണ് അവര് പ്രിഫർ ചെയ്യുന്നത് സോ ഞാൻ അത് വെച്ചാണ് ഉദ്ദേശിച്ച് പറഞ്ഞത് കുട്ടികൾ എവിടെ പോയാലും പഠിക്കും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ